ഞാൻ കൂടുതലായിട്ടും മൊബൈൽ ഡാറ്റയാണ് ഉപയോഗിക്കാറ് വൈഫൈ ഡാറ്റ ഉപയോഗിക്കാറില്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ പുറത്തോട്ടെല്ലാം പോകുമ്പോൾ വൈഫൈ പറ്റില്ല മൊബൈൽ ഡാറ്റേനെത്തന്നെ ആശ്രയിക്കേണ്ടി വരും കാരണം മൊബൈൽ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മൊബൈൽ ഡാറ്റ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് ഇതിൽ ഞാനൊരു ദിവസം പരമാവധി ഒന്നര ജി ബി വരെ ഡാറ്റ ഉപയോഗിക്കാറുണ്ട് കാരണം ഒന്നര ജി ബിയാണ് ഡെയിലി നമ്മുടെ മാക്സിമം ലിമിറ്റ് ഞാൻ പരമാവധി ഒന്നര ജിബി ഡാറ്റയാണ് തന്നെയാണ് ഉപയോഗിക്കാറ് ഇതിൽ നമ്മൾക്ക് പല പലതരത്തിലുള്ള നെറ്റ്വർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് കാരണം നമ്മൾ പല സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെയെല്ലാം നെറ്റ്വർക്കിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഡാറ്റയുടെ യൂസിൽ വ്യത്യാസം വരും കാരണം നല്ല രീതിയില് സ്പീഡ് കിട്ടില്ല ഇൻ്റർനെറ്റ് സ്പീഡ് ഉണ്ടാവില്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഡൗൺലോഡ് സ്പീഡ് കുറവായിരിക്കും അങ്ങനെയുള്ള ഒരുപാട് നെറ്റ്വർക്ക് ഇഷ്യൂകൾ ഉണ്ടാവാറുണ്ട്